സമൂഹമാദ്ധ്യമങ്ങളുടെ കടന്നുവരവ് തീർച്ചയായിട്ടും നമ്മുടെ വാർത്താ ഉപയോഗത്തില് മാറ്റങ്ങള് വരുത്തിയിട്ടുണ്ട് കാരണമെന്താണെന്നു വെച്ചാല് ഇപ്പോള് ഏത് വാർത്ത എങ്ങനെ നമ്മള് ഏത് ചാനലിലേത് നമ്മള് സ്വീകരിക്കണമെന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു ചോദ്യചിഹ്നമായിട്ട് മാറിയിട്ടുണ്ട് മാദ്ധ്യമങ്ങള് കടന്നുവരികയെന്ന് പറയുമ്പോള് നമ്മുടെ വാർത്താ ഉപയോഗത്തില് ഇത് തന്നെയാണ് മേയിന് ആയിട്ടും വന്നിരിക്കുന്നത് ഇപ്പോള് ഏതെങ്കിലുമൊരു പ്രത്യേക ഒരു ആശയത്തോട് അല്ലെങ്കിലേതെങ്കിലും ഒരു പ്രത്യേക എന്താണ് പറയുക തത്വശാസ്ത്രം അംഗീകരിക്കുന്നൊരു വ്യക്തിയാണെങ്കില് തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള ഒരു സംഭവമായിരിക്കും നമ്മളെപ്പോഴും തെരഞ്ഞെടുക്കുക അപ്പോള് അങ്ങനെ വരുമ്പോള് എന്താണ് സംഭവിക്കുകയെന്ന് വെച്ചാല് നമ്മുടെ സമൂഹമാധ്യമങ്ങളിലൂടെ നമുക്ക് കിട്ടുന്ന അറിവെന്ന് പറയുന്നതിനെ നമ്മളൊരു താരതമ്യം ചെയ്യാനുള്ളൊരു ശ്രമം നമ്മള് നടത്തും കാരണമെന്താണെന്നു വെച്ചാല് വാർത്ത ഉപയോഗിക്കുകയെന്ന് പറയുമ്പോള് അതില് മാറ്റം വരുത്തിയതെന്ത് എന്ന് ചോദിക്കുമ്പോള് വാർത്ത ഉപയോഗിക്കുന്നതില് മാറ്റം വരുത്തിയെന്ന് പറയുമ്പോള് തീർച്ചയായിട്ടും മാദ്ധ്യമങ്ങളുടെ എണ്ണം കൂടിയപ്പോള് നമ്മള് കുറെക്കൂടി റിലെയബിള് ആയിട്ടുള്ള അല്ലെങ്കില് നമുക്കേത് സ്വീകരിക്കാം ഏത് നമുക്ക് തള്ളിക്കളയാമെന്നുള്ളൊരു ധാരണ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടതാണ് അത് വരുത്തുന്നുണ്ടെന്നാണ് വരുത്തുന്നുണ്ട് ഇനി അതുപോലെത്തന്നെ കൂടുതലായിട്ടും ഇങ്ങനെ മാധ്യമങ്ങള് അല്ലെങ്കില് ഈ വാർത്തകള് വരുമ്പോള് നമ്മള് തീർച്ചയായിട്ടും ഓരോന്നിനെ തമ്മില് കൂടുതലൊന്ന് നോക്കുകയെന്ന് ആകുമ്പോഴെന്ത് സംഭവിക്കുമെന്നുവെച്ചാല് നമുക്കിത് കൂടുതല് ഇതിലേതാണ് സത്യമായിട്ടുള്ളത് ഇതിനകത്ത് ഏതാണ് തെറ്റായിട്ടുള്ളതെന്ന് നമുക്ക് തിരിച്ചറിയാനുള്ളൊരു ബുദ്ധിമുട്ട് വരും അപ്പോള് നമുക്ക് സാധാരണ ഗതിയിലാണെങ്കില് ഇപ്പം സംഭവിക്കാൻ സാധ്യതയുള്ളതെന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഏതെങ്കിലുമൊരെണ്ണം നോക്കി അത് കുറെക്കൂടി നല്ലതാണെന്ന് നമുക്ക് തോന്നുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതുതന്നെ ഫോളോ ചെയ്യാനാണ് സാധ്യത കൂടുതല് പിന്നെന്താണെന്ന് വെച്ചാല് നമുക്കൊരു ഒരു താരതമ്യപഠനം അതിന് തീർച്ചയായിട്ടും നമ്മളെ സ്വാധീനിക്കും താരതമ്യപഠനമെന്ന് പറയുമ്പോള് ഇപ്പോളേതാണ് കൂടുതല് റിലേബിള് ആയിട്ട് നമുക്ക് കിട്ടുന്നതെന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ധാരണയുണ്ടാകും പിന്നെ മാറ്റം വരുത്തുകയെന്ന് പറയുമ്പോള് നമുക്ക് പിന്നെ അതൊരു നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെയൊരു ഭാഗമായിട്ടത് മാറും എന്നുപറയുമ്പോള് ഏത് വാർത്ത നമ്മള് വായിക്കുന്നുണ്ടോ നിങ്ങള് അല്ലെങ്കില് ഇപ്പം കഴിഞ്ഞ കാലങ്ങളെ വെച്ചുനോക്കുമ്പോള് നമുക്കറിയാം ഇത് ഇതിനെക്കുറിച്ചൊന്നുമൊരു ധാരണയും അല്ലെങ്കില് വായിക്കാനോ അക്ഷര അഭ്യാസം പോലുമില്ലാത്തൊരു തലമുറ കടന്നുപോയിട്ടുണ്ട് അപ്പോള് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇന്ന് അക്ഷരജ്ഞാനവും ബോധവും ബോധ്യവുമുള്ള ആളുകളാണ് നമ്മുടെയിടയിലുള്ളത് അപ്പോള് അങ്ങനെയാകുമ്പോള് അവരിൽ നിന്ന് നമുക്ക് കിട്ടിയ ആ ഒരു അറിവെന്ന് പറയുന്നത് ഈ തീർച്ചയായിട്ടും മാദ്ധ്യമങ്ങളിലൂടെ കിട്ടിയതാണെന്ന് പറയുമ്പോള് ഇപ്പോള് ഇന്ന് ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെന്താണ് അത് കഴിഞ്ഞ തലമുറ അറിഞ്ഞിട്ടുണ്ടാകുമോയെന്ന് തന്നെ നമുക്ക് പറയാന് പറ്റില്ല പക്ഷേ പുതിയൊരു തലമുറയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഇപ്പോള് ദൈനംദിനമായിട്ട് നടക്കുന്ന കാര്യങ്ങളെന്താണോ ആ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ബോദ്ധ്യത്തോടെ അറിയുന്നതിനുള്ള ഒരു സാഹചര്യം സമൂഹ മാദ്ധ്യമങ്ങള് നമുക്ക് സഹായകമായിട്ടുണ്ട് തീർച്ചയായിട്ടും അതിലുപരിയായിട്ട് നമ്മുടെ സമൂഹത്തില് നടക്കുന്നൊരു കാര്യം അതിൻ്റെ ഒരു സത്യസ്ഥിതി അല്ലെങ്കിലൊരു നിജസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് നമ്മളെ ഈ പറഞ്ഞ സമൂഹമാദ്ധ്യമങ്ങള് നമ്മളെ തീർച്ചയായിട്ടും സഹായിച്ചിട്ടുണ്ട് അതിലുപരിയായിട്ട് ഇപ്പം ഒരു വാർത്ത കേട്ടാല് ആ വാർത്ത ശരിയാണോ ആ വാർത്തയുടെ നിജസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് ഇപ്പോളൊരൂ മാദ്ധ്യമത്തിൽ നമ്മള് വായിച്ചു ഏതെങ്കിലുമൊരു മീഡിയ നമ്മള് ഫോളോ ചെയ്തു അതിൽനിന്ന് നമുക്ക് വേണ്ടത് കിട്ടിയില്ലെങ്കില് ഇപ്പോള് അടുത്തതിലേക്ക് നമുക്ക് പോകാനുള്ളൊരു സാധ്യത അതിനുള്ളൊരു ചാൻസ്സ് അത് നമുക്കുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു നിജസ്ഥിതിയെന്ന് പറയുക ഇപ്പോളെന്ന് പറയുമ്പോള് തീർച്ചയായിട്ടും വാർത്ത ഉപയോഗപ്പെടുത്തുന്നതില് മാദ്ധ്യമങ്ങള് നമ്മളെ സഹായിച്ചിട്ടുണ്ട് കാരണമിപ്പം പത്രമാസികകളായാലും അതല്ലെങ്കില് ടെലിവിഷൻ പോലെയുള്ള മീഡിയാസിലായാലും നമ്മള് കാണുമ്പോൾ തീർച്ചയായിട്ടും അതാത് ദിവസത്തെ അല്ലെങ്കില് അപ്ഡേറ്റ് ആയിട്ടുള്ള ഇപ്പോള് നടക്കുന്ന കാര്യങ്ങളെ നമുക്ക് തിരിച്ചറിയാനുള്ളൊരു ബോധവും ബോധ്യവും നമുക്കുണ്ടായിട്ടുണ്ട് അതിലുപരിയായിട്ടിപ്പം പ്രായമായ ആളുകളാണെങ്കിലും ഇളം തലമുറയിൽപ്പെട്ടവരാണെങ്കിലും അവരുടെ അറിവ് വർദ്ധിപ്പിക്കുന്നതിന് അതിലുപരിയായിട്ട് സാമൂഹിക പരമായൊരു ബോധമുണ്ടാകുന്നതിനുപോലും ഈ പറഞ്ഞ വാർത്തകള് നമ്മെ സഹായിക്കുന്നുണ്ട് ഇന്നിപ്പം വാർത്തകളെന്ന് പറയുമ്പോള് ശരിക്കും ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ മാറിയിട്ടുണ്ട് അതിപ്പം നമ്മളെത്ര മാത്രം വേണ്ടായെന്ന് വെച്ചാലും അറിഞ്ഞോ അറിയാതെയോ പോലും വാർത്ത ഇപ്പോള് രാവിലെ തന്നെ നേരം എഴുന്നേല്ക്കുന്ന ആ ഒരു സമയത്തുതന്നെ നമ്മുടെ അടുത്തെന്താണ് സംഭവിച്ചത് ഇന്നത്തെ കാര്യമെന്താണുള്ളത് എന്നറിയാനുള്ളൊരു ആകാംക്ഷ ഓരോ വ്യക്തിക്കുമുണ്ടാകും അപ്പോള് അതിനുള്ള ഒരാകാംക്ഷ നമുക്ക് കിട്ടുന്നത് തീർച്ചയായിട്ടും പത്രമാദ്ധ്യമങ്ങളിലൂടെയാണ് അങ്ങനെ തീർച്ചയായിട്ടും വാർത്ത കൂടുതലറിയാനും കൂടുതല് തമ്മിൽ നമുക്ക് എന്താണ് നടന്നിരിക്കുന്നത് സമൂഹത്തിലെന്താണ് നടന്നിരിക്കുന്നതെന്നതിനെക്കുറിച്ച് അറിയാനുമുള്ളൊരു ത്വര മനുഷ്യനിലുണ്ടാക്കിയിട്ടുണ്ട് അത് തീർച്ചയായിട്ടും നമുക്ക് ഉപകാരപ്രദം തന്നെയാണ് വാർത്ത ഇന്നത്തെ ജീവിതത്തിന്റെയൊരു പാർട്ട് ആന്ഡ് പാർസല് ആയിട്ട് മാറിയിട്ടുണ്ട്